ഹലോ നമസ്കാരം ഇത് ലാൻഡ് ലൈനിൻ്റെ ഓഫീസ് അല്ലേ അതായത് വിളിക്കുന്നത് കോഴിക്കോട് കുറ്റിയാടിയിൽ നിന്നാണ് ഇവിടെ എൻ്റെ വീട്ടിലേക്കുള്ള ലാൻഡ് ലൈനിിൻ്റെ കണക്ഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്

ഒരു പണി നടക്കുന്ന സമയത്ത് ലാൻഡ് ലൈനിൻ്റെ വയറ് മുറിഞ്ഞു പോയി ഡിസ്കണക്റ്റ് ആയി പോയതാണ് അപ്പോൾ അത് റീക്കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്ന പരമാവധി പെട്ടെന്ന് നിങ്ങൾ ഒന്നു ചെയ്തു തരണം അതെ അതെ നമ്പറ് പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് അഞ്ച് മൂന്ന് ആറ് ഏഴ് മൂന്ന് ആ കുറ്റ്യാടി ഭാഗത്തു നിന്ന് അവിടെ ഫസ്റ്റ് കാണുന്ന റോഡിൽ തന്നെയാണ് പിന്നെ അവിടെ നിന്ന് ആ അതേ ഭാഗം തന്നെയാണ് ആ നിങ്ങൾ പറഞ്ഞ ആ സ്ഥലം തന്നെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്ന പരമാവധി പെട്ടെന്ന് നിങ്ങൾ അത് കണക്ട് ചെയ്യാൻ ശ്രമിക്ക് നമുക്ക് രണ്ട് മാസമായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല